എൻ്റെ വീട്ടിൽ ഞാനാണ് പാചകം കൂടുതൽ ചെയ്യാറ് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് എനിക്ക് പാചകം ചെയ്യുന്നതിനോട് വളരെ ഇഷ്ടം ഉള്ള ഒരാളാണ് മിക്കവാറും ഞങ്ങൾ തേങ്ങ അരച്ച് മുളക് മ മല്ലി സാമ്പാർ വയ്ക്കുമ്പം മാത്രമേ ഉപയോഗിക്കാറുള്ളു പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് കരിവേപ്പില ഈ ഇതൊക്കെ ഉപയോഗിച്ചാണ് മിക്കവാറും കറികളുണ്ടാക്കുന്നത് പിന്നെ തോരനിലും ഞങ്ങൾ ആവുന്നതും തേങ്ങ ചെരണ്ടിയിട്ടാണ് ചെയ്യുന്നത് മസാലക്കൂട്ട് കൂടുതലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല പിന്ന വല്ലപ്പോഴും മക്കളൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോളാണ് ഇറച്ചി കൾ മേടിക്കുന്നത് അത് തന്നെ ആടോ കോഴിയോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അതിൽ ആണ് ഞങ്ങൾ കറുവപ്പട്ട ജീരകം പെരുഞ്ചീരകം ഈ വക മസാലകൾ എന്നുവെച്ചാൽ വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ഇടയ്ക്ക് രസമൊക്കെ തിളപ്പിക്കാനായിട്ട് വെളുത്തുള്ളിയും ഉപയോഗിക്കാറുണ്ട് അല്ലാണ്ട് കൂടുതൽ വെളുത്തുള്ളിയുടെ ഉപയോഗവും ഞങ്ങൾക്ക് കുറവാണ് ഉള്ളിയാണ് ഞങ്ങൾ മിക്കവാറും ചെറിയ ഉള്ളി കൊണ്ടാണ് ഉള്ള ഉപയോഗമാണ് ഞങ്ങൾക്ക് കൂടുതൽ പിന്നെ ഈ കറുവപ്പട്ടയൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ വല്ലപ്പോഴും വീട്ടിൽ വിരുന്നൊക്കെ വരുമ്പോളാണ് ഞങ്ങൾ മസാലകളൊക്കെ ഉപയോഗിക്കുന്നത് മസാലക്കൂട്ട് വാങ്ങുന്നതും അപ്പൊളാണ് ഞങ്ങളത് കൂടുതലും മല്ലിയുടേയും മസാലക്കൂട്ടിൻറെയും കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറ് അപ്പം അത പ്രായമായത് കൊണ്ട് മസാല കൂടുതൽ ചെന്നാൽ വയറിന് സുഖമില്ലാത്തത് കൊണ്ട് മസാല ആവുന്നതും വീട്ടിൽ ഉപയോഗിക്കാറില്ല